നമുക്കിപ്പോൾ നമ്മുടെ ജില്ലയില് പിന്നെ ആരോഗ്യ സംരക്ഷണ ഒരു സംവിധാനത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതായത് നമുക്ക് നല്ലൊരു ആരോഗ്യ സംരക്ഷണ സംവിധാനം തന്നെയാണുള്ളത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാര്യം തന്നെയാണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വിധ സൗകര്യകങ്ങളും അതായത് നമക്ക് ഒരു രോഗിക്ക് വേണ്ട എന്തെങ്കിലും ഒക്കെ ഒര് അസുഖമുളള രോഗിക്ക് വേണ്ട എല്ലാ വിധ സംവിധാനങ്ങളും ഉള്ളൊരു പിന്നെ ഹോസ്പിറ്റലാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് വേണങ്കിമെങ്കിൽ പറയാം പല ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടുപോലും നമ്മുടെ ജില്ലയിലേക്ക് അതായത് നമ്മുടെ ജില്ലയിലേക്ക് രോഗികൾ ഒരുപാട് ഇവിടെനിന്ന് ഒരുപാട് പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങള് ഇപ്പോഴുമുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മികച്ച അതായത് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ രീതി കൊണ്ടുതന്നെയാണ് അവരൊക്കെ വരുന്നത് തന്നെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ സുഖമാണ് അതായത് നമുക്ക് നല്ലൊരു അതായത് നമ്മളീ നമ്മളെ ജില്ലയില് ജീവിക്കുന്നവർക്ക് നമ്മൾക്ക് സുഖമാണ് കാരണം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കില് അത്യാവശ്യം നല്ല അതായത് നമുക്ക് പെട്ടന്നൊരു അസുഖം വന്നാൽ നമ്മൾക്ക് അത്യാവശ്യം നല്ലൊരു ചികിത്സ കിട്ടുന്ന ഒരുപാട് ഹോസ്പിറ്റലുകൾ നമ്മുടെ ചുറ്റുപാട് തന്നെയുണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം കോഴിക്കോട് ഫാത്തിമാ ഹോസ്പിറ്റൽ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജനറൽ ആശുപത്രി അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട് നമുക്ക് അതെപോലെത്തെ നമുക്ക് ശുചിത്വമുള്ള അതായത് ശുചിത്വമുള്ള അന്തരീക്ഷമാണ് നമുക്ക് വേണെങ്കിലിപ്പോൾ ഒര് ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറ് ഇടവിട്ട് ഇടവിട്ട് തുടയ്ക്കലും അടിക്കലും നല്ല വൃത്തിയാക്കലും എല്ലാ സംഭവങ്ങളും നമുക്കുണ്ട് അതുകൊണ്ടൊന്നും നമുക്ക് രോഗികൾക്ക് പെട്ടന്ന് പകർച്ചവ്യാധി കാര്യങ്ങളൊന്നും കൂടുതല് ഉണ്ടാവില്ല